ആ അതെ മാഡം ആ അതെ ആ ആ അപ്പോൾ മാഡം എങ്ങനെയാണ് നമുക്ക് വണ്ടി എന്ന് പറയുമ്പോൾ മാഡത്തിന് ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് വരാൻ വേണ്ടി വണ്ടി വിട്ട് തരണോ അതൊ എങ്ങനെയാണ് ആ ഇങ്ങോട്ട് വരുന്നുണ്ട് അല്ലേ ശരി ശരി ഓക്കെ അപ്പോൾ എവിടെ എറണാകുളം സൗത്തോ നോർത്തോ ആ ഓക്കെ ആ നിങ്ങൾ എത്ര പേർ കാണും മാഡം ഒന്ന് ഒരാളാണോ ആറ് പേർ ഓ ശരി ശരി ആ ഓ നമുക്ക് തരാൻ പറ്റും മാഡം നമുക്ക് കാർ ഉണ്ട് റേറ്റ് അത് മാഡത്തിന് എങ്ങനെ വേണം ഡ്രൈവറെ ഉൾപ്പെടെ വേണോ അതൊ ഡ്രൈവ് നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യുമോ എങ്ങനെയാണ് വേണ്ടത് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നവർ ആരെങ്കിലുമുണ്ടോ അങ്ങനെ ആണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ സ്റ്റേഷനിൽ എത്തിക്കാം ആ ഡ്രൈവറിനെ വയ്ക്കുകയാണ് ഇപ്പം നിങ്ങൾ തന്നെ ഞങ്ങൾ ഡ്രൈവറിനെ വെച്ച് ഞങ്ങൾ തന്നെ പെട്രോൾ അടിച്ച് കൊണ്ടുവരുവാണെങ്കിൽ ആ റേറ്റ് കുറയും നിങ്ങൾക്ക് പക്ഷേ അതല്ല അല്ല ഡ്രൈവറിനെ ഞങ്ങൾ ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡ്രൈവറിൻ്റെ റേറ്റ് ഞങ്ങൾ അതിനകത്ത് ആഡഡ് ആയിട്ടാണ് തരുന്നത് അതല്ല നിങ്ങൾ പെട്രോൾ അടിച്ച് നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ റേറ്റൊ ഇത് വ് ഞങ്ങളുടെ റേറ്റ് കുറവായിരിക്കും നമ്മളൊരു പെർ ഡേ റേറ്റ് ആയിരിക്കും അപ്പോൾ കൊടുക്കുന്നത് ആ കിലോമീറ്റർ നമ്മൾ ഒരു നാല്പത്തെട്ട് അമ്പതൊക്കെയാണ് സാധാരണ മേടിക്കാറ് വാമന മൂർത്തി ടെമ്പിൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഡം എറണാകുളം അല്ലേ അപ്പം എറണാകുളം ആവുമ്പോൾ നമുക്ക് മറൈൻ ഡ്രൈവ് പിന്നെ അതിന്റെ അടുത്ത് നമുക്ക് പിന്നെ തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹിൽ പാലസ് ഉണ്ട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ എറണാകുളത്ത് കാണാനുണ്ട് പിന്നെ ഫോർട്ട് കൊച്ചി ബീച്ച് ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഉണ്ട് എറണാകുളം അമ്പലത്തിൽ നിന്ന് നമുക്കൊരു ഒരു മണിക്കൂറിനടുത്തുണ്ട് മാഡം ഡ്രൈവറിനെ വേണം അല്ലേ ആ അപ്പം ഞങ്ങൾ അങ്ങനെ ആവുമ്പോൾ ഡ്രൈവറും പെട്രോളുമൊക്കെ കൂടെ ആവുമ്പോഴത്തേക്ക് നമുക്കൊരു റേറ്റ് ഞങ്ങളൊരു എസ്റ്റിമേഷൻ നോക്കിയിട്ട് മാമിനെ വിളിച്ചറിയിച്ചാൽ മതിയാവുമല്ലോ ഓക്കെ അല്ല വിളിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാനത് നോക്കിയിട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ എന്നിട്ട് മാഡത്തിന് എന്നാണ് എപ്പം വേണ്ടത് ട്വൽവ്ത്തിനല്ലേ ഒരു ദിവസത്തേക്ക് മതിയല്ലോ വണ്ടി മതിയാകും അല്ലേ ശരി അപ്പം ഞാനതൊന്ന് നോക്കിയിട്ട് ഞാൻ മാഡത്തിനെ തിരിച്ച് വിളിക്കാം ഓക്കെ മാഡം ശരിയെന്നാൽ താങ്ക് യൂ